ഹലോ അതേ ആരായിരുന്നു എത്ര ദിവസമായി തുടങ്ങിയിട്ട് ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയെ നെഞ്ചെരിച്ചിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആണല്ലേ അപ്പോൾ സമയത്തിന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ

അപ്പോ പിന്നേ അതായത് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് അങ്ങനെ കറക്റ്റ് കറക്റ്റ് ആയിട്ട് കഴിക്കുന്നുണ്ടോ കറക്റ്റ് ഷെഡ്യൂളില് അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് നെഞ്ചുവേദന ഭയങ്കര നെഞ്ചുവേദനയാണോ സഹിക്കാൻ പറ്റാത്ത

അപ്പം നമുക്കെന്താ ചെയ്യാമെന്നുവെച്ചാൽ പിന്നെ നിങ്ങൾ നല്ലവണ്ണം ഫുഡ് കഴിക്കുക കറക്റ്റ് ടൈമിൽ ഗ്യാസുള്ള അതായത് ഗ്യാസിന്റെ ആണോയെന്ന് നമുക്കറിയില്ല എന്നാലും ഇന്നും കൂടെ ഒന്നു നോക്കീട്ട് നല്ലോണം ഫുഡ് കഴിച്ചാൽ അതായത് വെളുത്തുള്ളി ഒക്കെ ചതച്ചു കഴിക്കാം ഇഞ്ചി ചതച്ചിട്ട് വെള്ളം കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ കുറേ മാറി കിട്ടും

ടെസ്റ്റ് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇ സി ജി ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വരും നെഞ്ചുവേദന കുറവില്ലെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു നോക്കിയിട്ട് നെഞ്ചുവേദന കുറവൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടിവരും അതായത് നെഞ്ച് അതായത് ഇ സി ജി എടുക്കേണ്ടി വരും വേറെ എന്തെങ്കിലും പ്രശ്നമാണോന്ന് നമുക്കറിയില്ലല്ലോ ഇന്നത്തെ കാലമല്ലേ അപ്പോൾ നമുക്കതൊന്നു നോക്കണം ഏ ആ ഇവിടെ വന്ന് എടുക്കാമല്ലോ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും വന്നോളൂ നമുക്ക് ഇ സി ജി ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഒന്ന് കാണിച്ചാൽ മതി എന്തെങ്കിലും വേരിയേഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് നല്ലവണ്ണം നോക്കാം ആ ഓക്കെ എന്നാൽ